നവജാത ശിശുക്കൾക്കു വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടെന്ന് വൃത്തിഹീനമായ സാഹചര്യം കാരണം അസുഖം വരാതിരിക്കാൻ നിങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്നു ചോദിച്ചാൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കൊതുകിനെ നാശമാക്കിക്കളയണം എലി കൂറ അങ്ങനെയുള്ള വീട്ടിനുള്ളിലുള്ള ജീവികളെ പരമാവധി ഓടിക്കാൻ നോക്കുക വൃത്തിയുള്ള ഭക്ഷണങ്ങൾ സെർവെയ്യുക ചൂടുള്ള ഭക്ഷണം ചൂടുള്ള വെള്ളം ഒക്കെ പരമാധി ഉപയോഗിക്കാൻ നോക്കുക കുട്ടിക്ക് വാക്സിൻ കൃത്യ നിശ്ചിതമായ സമയത്തു നൽകുക കുട്ടിയെ കൊതുകു കടിക്കുന്നതും കുട്ടിയുടെ മേത്ത് എന്തെങ്കിലും പ്രാണി അങ്ങനത്തെയൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോള് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക വീടിനുള്ള് അകം പരിസരം വീടിനുള്ളിലെല്ലാ ഭാഗവും വൃത്തിയാക്കുക കാരണം എന്താണെന്നുവച്ചാൽ കുട്ടികൾ അറിയാലോ മുട്ടുകുത്തി നടക്കുന്നതും ആ കാരണമെന്നുവച്ചാൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിലും കണ്ണിലൊക്കെ കയറി പനി തുമ്മൽ അങ്ങനെയൊക്കെ വരാൻ സാധ്യതുണ്ട് ചുറ്റുവട്ടം വൃത്തിയാക്കിവയ്ക്കുക അതൊക്കെത്തന്നെയാണു പറയാനുള്ളത്